വളരെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും അതെ സമയം ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ടതുമായ ഒരു വിഷയമാണ് ഇത് ഒരു നിമിഷം നമുക്ക് നമ്മുടെയൊക്കെ ബാല്യകാലത്തിലേക്ക് ഒന്ന് പിൻതിരിഞ്ഞ് നോക്കാം ഏകദേശം രണ്ട് പതിറ്റാണ്ട് മുമ്പ് വരെ വൈകുന്നേരങ്ങൾ കുട്ടികളൊത്ത് ചേർന്ന് കളിക്കുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു ഉദാഹരണത്തിന് സൈക്കൾ ചവിട്ടുക ക്രിക്കറ്റ് കളി ഗോലി കളി കുട്ടിയും കോലും കളിക്കുക പിന്നെ മണ്ണപ്പം ചുട്ട് കളിക്കാൻ ഇങ്ങനെ പലതരം കളികൾ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഉള്ള കളികൾ അവരുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുക മാത്രമല്ല അവരുടെ ഭാവനയെ ഉത്തേജിപ്പിക്കുകയും ഒപ്പം തന്നെ അവർക്ക് ഒരുമയുടെ സ്നേഹത്തിൻ്റെ ബാലപാഠങ്ങൾ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ കുഞ്ഞുങ്ങൾ പ്രായത്തിനൊത്ത പക്വത ഉള്ളവരാണെന്ന് പക്വത ഉള്ളവരായിട്ടാണ് വളർന്നിരുന്നത് അവരുടെ കളികളെല്ലാം തന്നെ വളരെ ലളിതവും പ്രകൃതിയുമായി ഇഴകി ചേർന്ന് ഉള്ളതുമായിരുന്നു ഇന്നത്തെ പോലെ വില കൂടിയ കളിപ്പ് കളിപ്പാട്ടങ്ങളോ സജ്ജീകരണങ്ങളോ മാതാപിതാക്കളുടെ മേൽനോട്ടമോ ഒന്നും ആവശ്യമായിരുന്നില്ല അവർ അവരുടേതായ ലോകത്തിൽ സന്തോഷിച്ചു ഉല്ലസിച്ച് അങ്ങനെ അടിച്ചു പൊളിച്ചു ജീവിച്ചിരുന്നു കഴിഞ്ഞ പത്ത് കൊല്ലമായി കുട്ടികളുടെ വിനോദ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയതായി കാണുന്നു ഉദാഹരണത്തിന് കൊറോണ കാലഘട്ടത്തിലെ ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ ആയി പിന്നെ പുറത്ത് പോകാനുള്ള നിയന്ത്രണങ്ങൾ കാരണം സാങ്കേതിക വിദ്യയുടെ സ്വാധീനം പല മടങ്ങ് അത് വർധിച്ചു ഇത് മൂലം കുട്ടികളുടെ സെൻസറി മോട്ടോർ ആൻഡ് അറ്റാച്മെൻ്റ് ഡെവലപ്മെൻ്റ് എന്നിവയിലെ നിർണ്ണായക നാഴിക കല്ലുകൾ നിറവേറ്റപ്പെടുന്നില്ല എന്നുള്ളതും അടിവരയിട്ട് പറയേണ്ട കാര്യമാണ് ഫോണിലൂടെ ഗെയിമ് കളിയും അതുപോലെ സീരിയൽസ് കാണലും അതെല്ലാം തന്നെ വർധിച്ചു അത് ഒരു പക്ഷെ ഉപദ്രവമായ രീതിയിൽ അനിയന്ത്രിതമായ ഉപയോഗം ഉദാഹരണത്തിന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്ടൂബ് അതുപോലെ ഇൻസ്റ്റാഗ്രാമൊക്കെ വഴി കുട്ടികൾ അനാവശ്യ സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയും അതുവഴി അപകടത്തിലേക്ക് എത്തിച്ചേരുന്നതും നമ്മൾ കണ്ടു പിന്നെ അതുപോലെ ചില അപകടം പിടിച്ച ഗെയിമുകൾ ഉദാഹരണത്തിന് ബ്ലൂ വെയില് അത് കളിച്ച് കുട്ടികൾ സ്വയം മരണപ്പെടുന്നതും നമ്മൾ കണ്ടു അങ്ങനെ അമിതമായ സാങ്കേതിക വിദ്യയുടെ അമിതമായ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മൂലം പല കുട്ടികളും വഴി തെറ്റി പോവുന്നതും നമ്മൾ കണ്ടു ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള പ്രധാന മാർഗം എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ടുള്ള സമ്പർക്കം പുലർത്തുക അതായത് കുട്ടികളെ എത്ര അധികം പ്രകൃതിയുമായി സമ്പർക്കം പുലർത്തുന്നുവോ അത്ര അധികം അവർ ആരോഗ്യവാന്മാരും സന്തോഷവാന്മാരും ആയി തീരും പിന്നെ മനുഷ്യനും മനുഷ്യരുമായുള്ള ബന്ധം അല്ലെങ്കിൽ അടുപ്പം സ്ഥാപിക്കുക അതായത് ഒരുമിച്ച് വൈകുന്നേരങ്ങളിൽ കളിക്കുക കുട്ടികളുമായിട്ട് കളിക്കുക അങ്ങനെ പിന്നെ അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സ്പോട്സ് ക്രിക്കറ്റ് കളിക്കുക പിന്നെ ബാഡ്മിൻ്റൺ ഷട്ടില് കളിക്കുക ഒളിച്ച് കളിക്കുക സാറ്റ് സീറ്റ് കളിക്കുക അങ്ങനത്തെ കളികളൊക്കെ കൂടുതലും കളിക്കാൻ ശ്രദ്ധിക്കുക സ്പർശനം കുട്ടികളെ കൂടുതൽ ആരോഗ്യവാന്മാരാക്കുന്നു പതിവായുള്ള ആലിംഗനം കൈകൾ ചേർത്ത് പിടിക്കുക എന്നിവ ചെയ്യുന്നതോടെ കുട്ടികളുടെ സമ്മർദ്ദം കുറയ്ക്കും അവരുടെ രോഗപ്രതിരോധ ശക്തി വർധിക്കുകയും ചെയ്യുന്നു മുറിയ്ക്കുള്ളിൽ മാത്രമായി കഴിയുന്ന അവസ്ഥ ഉള്ള കുട്ടികളാണ് കൂടുതലും ഈ ഫോണിലും സാങ്കേതിക വിദ്യകളിൽ കമ്പ്യൂട്ടറുകളിലൊക്കെ കൂടുതലും ചെന്ന് പെടുക അപ്പം അതിൽ നിന്നൊക്കെ കുറക്കാനായിട്ട് കുട്ടികളെ തന്നെ ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക എപ്പോഴും ഒപ്പം ഇരിക്കുക കളിക്കുക പഠിക്കുക പഠനത്തിലും സാങ്കേതിക വിദ്യയ്ക്ക് വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ അതിനേക്കാൾ ഉപരി അത് ദോഷമാണ് ചെയ്യുന്നത്